ഹലോ ആ ഹലോ ഓക്കെ ഓക്കെ എന്തൊക്കെ വെജിറ്റബിൾസ

നിങ്ങളൊരു രണ്ട് ദിവസം രണ്ട് ദിവസം മുമ്പ് ലിസ്റ്റ് ഇടുവായിരുന്നെങ്കിൽ നമുക്ക് ഇല്ലാത്തത് അന്നൊരു ദിവസത്തേക്ക് റെഡി ആക്കി വെക്കാമായിരുന്നു എന്നത്തേക്കാണ് വേണ്ടത് ഓക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി ഒരു പന്ത്രണ്ട് പന്ത്രണ്ടാം തിയ്യതി ഒരു മോർണിംഗ് നിങ്ങളൊരു ലിസ്റ്റ് ഇട്ടുതന്നാൽ മതി നമ്മൾ പതിനാലാം തിയ്യതി എത്ര മണിക്ക് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ എവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത് എവിടെയാണ്

ഓക്കെ ഫുഡൊക്കെ ഫുഡൊക്കെ എവിടെയാണ് ഉണ്ടാക്കുന്നത് അവിടെ തന്നെയാണ് ഓക്കെ ഞങ്ങളവിടേക്ക് എല്ലാ സാധനങ്ങളും എത്തിച്ച് തരും ഇപ്പോൾ എന്തൊക്കെ വേണ്ടേ എത്ര വേണം എത്ര കിലോ വേണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പറഞ്ഞാൽ മതി ആ എല്ലാം ഉണ്ട് കേട്ടോ ആ ഉണ്ട് ഉണ്ട് ആ അതായത് ആ ഹോൾസെയിൽ റേറ്റിന് റെഡിയാക്കി താരാട്ടോ അപ്പോൾ എത്ര എത്രപേർക്കുള്ള സദ്യാന്നാ പറഞ്ഞത് ഓക്കെ അല്ല ഈ വെജിറ്റബ്ൾസ് മാത്രമാണോ അതോ പിന്നെ നോൺ ഉണ്ടോ ആ ആ ആ റൈസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ

ഓക്കെ ഓക്കെ ഓക്കെ നമുക്ക് സെറ്റാക്കാം നിങ്ങൾ വന്നാൽ മതി ഇല്ലല്ലാ ഇല്ല നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ പിന്നെ കറക്റ്റ് ലൊക്കേഷൻ ഇട്ടുതന്നാൽ മതി ഞങ്ങളവിടെ എത്തിച്ചോളും ഓക്കെ ലിസ്റ്റ് ഇടുവായിരുന്നെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എല്ലാം പാക്ക് ചെയ്ത് എടുത്ത് വെക്കാൻ പറ്റുവല്ലോ ആ അത് കുഴപ്പമില്ല അത് ഞങ്ങൾ തിരിച്ചെടുത്തോളാ കേട്ടോ

ഓക്കെ ഓക്കെ